ആദ്യത്തെ പ്രോഡക്റ്റ് നന്നായിരുന്നു അത് ഞാനൊരു ബാഗായിരുന്നു വാങ്ങിച്ചിരുന്നത് അതെനിക്ക് വളരെയധികം ഇഷ്ടമായി ഞാൻ കൊടുത്തിരുന്ന കളറും വലിപ്പവും എല്ലാം സെയിമായിരുന്നു അത് കിട്ടിയപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടതു കൊണ്ടാണ് ഞാൻ രണ്ടാമത് ഒരു ഓർഡർ കൂടി ചെയ്തത് പക്ഷേ രണ്ടാമത് ഓർഡർ ചെയ്തത് ഒരു കുർത്തയാണ് പക്ഷേ എനിക്കത് ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല അത് പാകമായിരുന്നില്ല എനിക്ക് ഞാൻ തിരഞ്ഞെടുത്ത കളറോ പാറ്റേണോ അല്ലായിരുന്നു അത് ഞാൻ എൻ്റെ സൈസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അതെനിക്ക് പാകമായിരുന്നില്ല അത് കഴുകിയപ്പോൾ അതിൻ്റെ കളറാകെ പോയി നരച്ചത് പോലെയായി അത് ഒരു പ്രാവശ്യമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ എങ്കിലും ഇപ്പോൾ കണ്ടാൽ അത് പഴകിയ വസ്ത്രം പോലെയാണ് ഇരിക്കുന്നത് അത് പുതിയതാണെന്ന് കണ്ടാൽ പറയുകയേ ഇല്ല ആദ്യത്തെ പ്രോഡക്റ്റ് നന്നായതുകൊണ്ടാണ് അത് വിശ്വസിച്ച് ഞാൻ രണ്ടാമതും ഓർഡർ ചെയ്തത് പക്ഷേ അത് ഇങ്ങനെ വളരെ മോശമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത തുണി കൊണ്ടായിരുന്നു തുണിയായിരുന്നു അത് അതാണ് ആദ്യ വാഷ് കൊണ്ട് തന്നെ അത് കളർ പോയത് ഈ രണ്ടാമത്തെ പ്രോഡക്റ്റിൽ എനിക്ക് ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല